എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ജേർണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് എന്ന് പറയണത് ഫ്രണ്ട്സ് ഒക്കെ മൂവി കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞതോടെയാണ് ഞാൻ പോയി കാണാൻ പോണത് നല്ലൊരു മൂവിയായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടും അത് ഫാമിലിയായിട്ടും ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയായിരുന്നു എയ്റ്റീൻ പ്ലസ് എന്ന് പറയണത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റുഡൻസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ലൗവാണ് അതിനെക്കുറിച്ചിട്ടാണ് അതിൽ പറയണത് എല്ലാം കൊണ്ടും പാർട്ടി ബേസിലാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു ചിത്രമാക്കി മാറ്റിയ ഒരു സിനിമയാണ് എയ്റ്റീൻ പ്ലസ് എന്ന് പറയണത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ഒരാളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അല്ലേൽ ഓടിപ്പോവുക അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജ് ചെയ്യുകയോ ചെയ്യുകയാണ് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒരു ഭവിഷ്യത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ മൂവി പ്രതിപാദിക്കുന്നത് ഒരു ബെസ്റ്റ് മൂവി തന്നെയായിരുന്നു എന്ന് പറയാം നമുക്ക് പിന്നെ ടി വി ഷോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കാണുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ എല്ലാ ആൾക്കാരിനെയും അതിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും ഓരോ ആൾക്കാരും സീരിയൽ അഭിനയിച്ച കുറച്ച് ആൾക്കാര് ആണെങ്കിലും സിനിമയിൽ ആണെങ്കിലും അവരുടെ ആ ഒരു ഒരു സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോൾ ആ ഒരു ഇത് മാത്രമേ നമുക്ക് അറിയുകയുള്ളായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസിൽ വന്നതോടെ അതിൻ്റെ റിയൽ ക്യാരക്റ്ററാണെങ്കിലും അവർ എങ്ങനെയാണ് മറ്റുള്ളവരിന്റെയടുത്ത് പെരുമാറുക എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അതിലൂടെ അവർക്ക് കുറേ ടാസ്ക് ഒക്കെ കൊടുക്കുമായിരുന്നു ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ അവർ ഫേക്ക് ആയിട്ടാണോ കളിക്കുന്നത് അല്ലെങ്കിൽ റിയൽ ആയിട്ടാണോ കളിക്കണത് എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറേ പേര് പാര വെച്ച് നിൽക്കണ കുറേ പേരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റണ ഒരു ഷോ തന്നെയായിരുന്നു അത് എന്ന് പറയണത് എല്ലാവരും ഏകദേശം എല്ലാവരും മനസിലായി നമ്മൾ സീരിയൽ കണ്ട് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ വിലയിരുത്തിയില്ലേ അത് പോലെ തന്നെ ഇവിടെ വന്ന് അവര് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു ഞാങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ടായിരുന്നു ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണാൻ തുടങ്ങിയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഓരോ ആൾക്കാരിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ വോട്ട് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടീട്ട് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറയണത് അത് സിനിമ ആയാലും ടി വി ഷോ ആയാലും എനിക്ക് ഈ രണ്ടു കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ട് സിനിമയും ടി വി ഷോയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു